തീർച്ചയായും ഇന്നത്തെ മാ ഇന്നത്തെ മാധ്യമ ലോകം എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറക്ക് എന്തൊക്കെയാണ് ചെറുകിട വ്യവസായങ്ങൾ കുടിൽ വ്യവസായങ്ങൾ എന്തക്കെ തരം കൃഷികള് ഇതിനെപ്പറ്റി ഒന്നും ആ എല്ലാവരും വളരെ റണ്ണിങ് റണ്ണിങ് എന്നുവച്ചാല് ഓട്ടത്തിലാണ് സമ്പാദിക്കുവാൻ വേണ്ടി എങ്ങനെ സമ്പാദിക്കാം പഴയ ആളുകളെപ്പറ്റി ഒന്നും ഇന്നത്തെ ജനതയ്ക്ക് അറിയത്തില്ല പ്ലസ് ടു പഠിക്കുന്നു അടുത്തതിനു പോകുന്നു ജർമനിക്ക് പോകുന്നു ഇങ്ങനെ പോകുന്നു പക്ഷെ നമ്മളിങ്ങനെ പരമ്പരാഗത കൃഷിയിലേക്കും വ്യവസായങ്ങളെ കുറിച്ചൊക്കെ പുതിയ തലമുറയ്ക്ക് എന്ന് പറയാൻ വേണ്ടി ഇങ്ങനെയുള്ള പത്രങ്ങളിലൂടെ ഒക്കെ നമ്മുടെ വ്യവസായങ്ങളെ പറ്റി അറിയണം ചെറുകിട വ്യവസായം എന്താണ് കുടിൽ വ്യവസായങ്ങള് കൃഷി പലർക്കും കൃഷിയെപ്പറ്റി ഇന്ന് അജ്ഞരാണ് അവിടെ എല്ലാം നമ്മുടെ പത്രങ്ങൾ ഇതിൻ്റെ ധർമ്മം പാലിക്കണമെന്നാണ് അപേക്ഷിക്കുന്നത് പറയുവാനുള്ളത് പത്രധർമ്മമാണ് ഈ ചെറുകിട വ്യവസായങ്ങളെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയും എന്തെല്ലാം കയറുൽപ്പന്നങ്ങള് തേൻ കൃഷി ഇങ്ങനെയുള്ളതിനൊക്കെ പറ്റി നമുക്ക് കൂടുതൽ അറിവ് അവർക്ക് കൊടുക്കുക എന്നുള്ളത് പത്രത്തിൻ്റെ ധർമ്മമാണ് ഇവയൊക്കെ പത്രത്തിൻ്റെ ഇങ്ങനെ സാമ്പത്തിക കോളങ്ങളില് ഓരോ ദിവസവും ചെറുകിട വ്യവസായങ്ങളെ പറ്റിയൊക്കെ പ്രതിപാദിക്കുമ്പോൾ വായിക്കുന്നവർ അതിനെപ്പറ്റി കൂടുതൽ ഗ്രാഹ്യമുണ്ടാവുന്നു എന്തെങ്കിലും ഒന്നും അറിയാത്തവരുണ്ട് ഇന്നത്തെ ലോകത്തില് കൃഷികളെ പറ്റി എന്ത് തരം കൃഷി നെൽകൃഷി അതുപോലെ തന്നെ കുരുമുളക് മറ്റ് നെൽ കൃഷി ഇവയെ പറ്റിയൊക്കെ ഇന്നത്തെ കുട്ടികള് അജ്ഞരാണ് ഇവരൊക്കെ വായിക്കു ഇതൊക്കെ കണ്ടു പഠിക്കുവാനും മറ്റുള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞ് കൊടുക്കുവാനുമൊക്കെ സാധിക്കും അതുകൊണ്ടുതന്നെ സാമ്പത്തികമായി സംസാരിക്കുമ്പോള് ഇപ്പോഴെല്ലാം പത്രങ്ങളിൽ വരുന്നതെല്ലാം വൻകിട ബിസിനസ്സുകളെ പറ്റിയാണ് എങ്ങനെ നമുക്ക് സമ്പാദിക്കാം എന്നിങ്ങനെ പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യവസായങ്ങളെ പറ്റി കുടിൽ വ്യവസായം നെൽ കൃഷി അവയെല്ലാം ഇങ്ങനെയുള്ള നെൽ കൃഷികള് തേൻ കൃഷി കൂൺ കൃഷി അവബോധം കുട്ടികളിലുണ്ടാക്കുവാനായിട്ട് ഈ പത്രങ്ങളിളിലെ പേജുകളിലൊക്കെ ബന്ധപ്പെട്ട കോളങ്ങളിൽ വ്യവസായങ്ങളെ പറ്റി അല്ലെങ്കിൽ കൃഷി ഇടങ്ങളെ പറ്റി പണ്ടുണ്ടായിരുന്ന കൃഷികളെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അതില് ലേഖനങ്ങൾ വരുന്നതൊക്കെ വളരെ നല്ലതാണ് അവർക്ക് കൂടുതൽ അറിവുണ്ടാവും എന്താണെന്നുള്ളതിനുള്ള കുട്ടികളിൽ വായനയ്ക്കുള്ളിൽ നിന്നും ഒരു പക്ഷെ അവയായിരിക്കാം ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ നിന്നും അവരെ മാറ്റിമറിക്കുവാനായിട്ട് പോവുന്നത് അതുകൊണ്ടുതന്നെ കൂടുതലായി ഇങ്ങനെയുള്ള വ്യവസായങ്ങളെ കുറിച്ചും ചെറുകിട വ്യവസായങ്ങള് കുറച്ച് കൂടുതലായിട്ട് വരണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വലിയ സാമ്പത്തികമുള്ളവരൊന്നും വലിയ വലിയ വ്യവസായങ്ങളിലേക്ക് പോവാൻ പറ്റില്ല കൊച്ച് ചെറിയ ചെറിയ ബിസിനസ്സിലൂടെ വളർന്നു വരുവാനായിട്ടുള്ള ഈ ചെറിയ എന്താ പറയുക താഴ്ന്ന നിലവാരമുള്ളവർക്ക് സാധിക്കത്തുള്ളൂ അല്ലാതെ വലിയ ഒരു ബിസിനസ്സുകാരനാവുക എന്നുള്ളതിനെക്കാളുപരി ചെറിയ കുടിൽ വ്യവസായങ്ങളെ പറ്റി കൂടുതൽ അറിവ് കൊടുക്കുക ചെറിയതിൽ നിന്ന് വളർന്ന് അവൻ വൻകിട വ്യവസായങ്ങളിലേക്ക് പോകണം അല്ലാതെ വൻകിട വ്യവസായങ്ങൾ മാത്രം അല്ലെങ്കിൽ ടൂറിസം പദ്ധതി അങ്ങനെയുള്ള പദ്ധതികൾ മാത്രമറിഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല നമുക്ക് അജ്ഞനായവർക്ക് ഈ കുടിൽ വ്യവസായത്തെ പറ്റി കൂടുതൽ പറഞ്ഞുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രയോജനകരമായ ഒന്നായിട്ട് നമുക്ക് തോന്നുക